പണ്ടെടുത്ത ഫോട്ടോകൾ കുറച്ചൊക്കെ എന്റെ കയ്യിലുണ്ട് പഴയ ഫോട്ടോ ആണെങ്കിൽ അതിനൊരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും ഇപ്പോഴുള്ള ഫോട്ടോസ് ഡിജിറ്റല് രീതിയിലുള്ള ഫോട്ടോസ് എടുക്കുമ്പോൾ എല്ലാത്തിനും ഒരു ഫിൽറ്ററിന്റെ ആ ഒരു കടന്നു കയറ്റം കൂടുതലായിട്ട് തോന്നാറുണ്ട് നമുക്ക് തന്നെ ഇയാൾ തന്നെ ആണോ എന്നുള്ളൊരു സംശയം തോന്നുന്ന രീതിയിലുള്ള ഫോട്ടോസ് ആയി മാറി തുടങ്ങിയിട്ടുണ്ട് പണ്ടുള്ള ഫോട്ടോസ് എപ്പോഴും നമുക്ക് ഓർത്തു വയ്ക്കാനായിട്ട് രസമാണ് മറിച്ചു നോക്കുന്ന സമയത്ത് വിവാഹ ആല്ബങ്ങളാണെങ്കിലും മക്കളുടെ ഫോട്ടോ ആണെങ്കിലും ഒക്കെ ഇപ്പോൾ നമുക്ക് നേരിട്ട് അതത്ര ഫീൽ ചെയ്യിലെങ്കിലും കൂടി കുറച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഈ പ്രായത്തിലുള്ള ഫോട്ടോസ് കാണുമ്പോ വളരെ ഒരു സന്തോഷമാണ് പണ്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെയായിരുന്നു അത് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമാണ് അതങ്ങനെ ഓർത്തെടുക്കുന്നത് ഈ ഫോട്ടോകളിലൂടെയാണ് എനിക്കൊരുപാട് മുടിയുള്ള ഒരാളായിരുന്നു ഇപ്പോൾ നല്ലതുപോലെ മുടി കൊഴിഞ്ഞ് ശ്രദ്ധിക്കാനും സമയമില്ല അങ്ങനെ വൈറ്റമിന്റെ കുറവും ഒക്കെയായി ജീവിത പ്രാരാബ്ധമായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പോൾ മുടിയെല്ലാം ശ്രദ്ധ ഒക്കെ കുറവാണ് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് മാമന്റെ മകൾ ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട് എടുത്തൊരു ഫോട്ടോ ആണ് ഞാൻ ടെന്ത്തിൽ പഠിക്കുമ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ് അത് വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ കണ്ടപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു അത്രയധികം നീളത്തിലുള്ള മുടി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ പോലും വിശ്വസിക്കില്ല അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു ആ ഫോട്ടോ എന്റെ കയ്യിലില്ല ഞാന് പറഞ്ഞിരുന്നു ചേച്ചിക്ക് അതയച്ച് തായോ കേട്ടോ എന്ന് പറഞ്ഞു അതിനെ ഓര്ത്തു വയ്ക്കാന് അല്ലെങ്കില് പറയാമല്ലോ എനിക്ക് ഇത്രയധികം മുടി ഉണ്ടായിരുന്നു എന്ന് ഫോട്ടോസ് എപ്പോഴും ഒരു ഓര്മ്മപ്പെടുത്തലാണ് അല്ലെങ്കില് ആലോചിച്ച് വയ്ക്കാനായിട്ട് നമുക്ക് മെമ്മറി ഒരുപാട് ഉണ്ടാവുന്ന ഒരു ഇതുതന്നെയാണ് ഫോട്ടോസ് എന്ന് പറയുന്നത് ഡിജിറ്റലിനേക്കാളും ഇങ്ങനെയുള്ള പ്രിന്റുകളായിട്ട് എടുത്തു വയ്ക്കുന്നതായിരിക്കും കുറച്ചു കൂടി ഒരു ആത്മബന്ധം കൂടുതൽ തോന്നുന്നത് നമുക്കെപ്പോഴും